പരമ്പരാഗതമായിട്ടുള്ള പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം ലാപ്പ്ടോപ്പ് മൊബൈല് എന്നിവയിൽ ആണിപ്പം കൂടുതലും എഴുതപ്പെടുന്നത് ലാപ്പ്ടോപ്പ് മൊബൈൽ അതിനകത്ത് വേർഡ് എന്ന് പറയുന്നുള്ള ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് കൂടുതലും എഴുതപ്പെട്ട് ഇന്നത്തെ കാലത്ത് എഴുതപ്പെടുന്നത് എന്നിരുന്നാലും നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് കൈ കൊണ്ട് തന്നെ എഴുതുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം പിന്നെ ഇന്നത്തെ കാലത്ത് എഴുത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് തന്നെ ടൈപ്പിങ്ങ് ആണ് മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ട് എഴുതുക അതുപോലെ തന്നെ ലാപ്പ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് എഴുതുക ആരും കൈ ഉപയോഗിച്ച് പെൻ ഉപയോഗിച്ച് പേപ്പർ ഉപയോഗിച്ചിട്ട് എഴുതുന്നത് അത്ര കണ്ട് വരുന്നില്ല ഇന്നത്തെ ജനറേഷനിലെ മാറ്റമാണത് കൂടുതൽ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ കൈ ചലിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൈയ്ക്ക് വരുന്ന മാറ്റങ്ങൾ കൈ ചലിക്കാതെ ടൈപ്പിങ്ങ് എന്ന് പറയുന്നത് വലിയ ചലനം ഇല്ലാത്ത ഒരു കാര്യമാണ് അതിന് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അതായത് ഇപ്പം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ കൈയ്ക്ക് ഒരു വ്യായാമം ആണ് ടൈപ്പ് ചെയ്യുമ്പം കൈയ്ക്ക് വലിയ രീതിയിലുള്ള പണി വരുന്നില്ല അതുകൊണ്ട് തന്നെ പാരമ്പരാഗതമായിട്ടുള്ള പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതുന്നതാണ് ഇന്നും എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് എനിക്കതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എഴുത്തിലുണ്ട് വന്ന മാറ്റം ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ് ടൈപ്പിങ്ങ് വന്നു എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് എഴുതി തീർക്കാൻ കഴിയുന്നു അതൊക്കെയാണ് ഇന്നത്തെ മാറ്റം എന്ന് പറയുന്നത് ടെക്നോളോജിയുടെ വളർച്ചയാണ് ഇതിന് പിന്നിലുള്ളത്